വലിയ വലിയ കർഷകർക്ക് ഏറ്റവും കൂടുതല് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വെല്ലുവിളികളാണ് മൃഗങ്ങൾ കാറ്റ് വെള്ളപ്പൊക്കം വിളർച്ച എന്നിവയൊക്കെ മൃഗങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കുരങ്ങുകൾ പന്നി മാൻ ഇവയെല്ലാം കൃഷി വളരെ ക്രൂരമായിട്ടാണു നശിപ്പിക്കുന്നത് കാറ്റുകൾ പല നൂറ് നൂറ്റി ഇരുപത് ഓളം വാഴകൾ ഒറ്റയടിക്ക് പൊട്ടിക്കുന്നു ഒടിച്ചുകളയുന്നു വളരെയധികം വെള്ളം വെള്ളപ്പൊക്കമുണ്ടാവുമ്പോള് ചെടികൾക്കു വളരാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് പിന്നെ വിളർച്ച വെയില്കൊണ്ടുള്ള വിളർച്ച ചെടികളൊക്കെ കരിഞ്ഞാണു പോകുന്നത് കരിഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ കൃഷികൾ നടത്തുന്നത് ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്നു പറയുന്നതൊക്കെ ഇതൊക്കെത്തന്നെയാണ് മൃഗങ്ങളിൽ കുരങ്ങുകളാണ് ഏറ്റവും ശക്തന്മാർ അവര് കായ്കളും മറ്റുള്ളവയെല്ലാം നശിപ്പിക്കുന്നു ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വെല്ലുവിളികൾ കൃഷിക്കാര് അനുഭവിക്കുന്നത്